എല്ലാവർഷവും ഡിസംബർ ഇരുപത്തി അഞ്ചിന് ആഘോഷിക്കുന്ന ഒരു പ്രധാന ഉത്സവമാണ് ക്രിസ്മസ് ലോകമെമ്പാടുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ ഉണ്ണിയേശുവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്നതാണ് ക്രിസ്മസ് ഉണ്ണിയേശുവിൻ്റെ പിറവിയാണ് ഒരു പുൽകൂടൊരുക്കി അർദ്ധരാത്രിയിൽ ഉണ്ണിയേശുവിൻ്റെ പിറവി വിളിച്ചറിയിക്കത്തക്ക രീതിയിൽ പുൽക്കൂട്ടിലൊരു ഉണ്ണിയേശുവും ചുറ്റുപാടും ആട്ടിടയന്മാരും ആടുകളും എല്ലാം വിശ്വാസികൾ ഒരുക്കിവെക്കും എളിമയാണ് അവിടെ കാണിക്കുന്നത് ഒരു പുൽക്കൂട്ടിൽ ജനിച്ച ഒരു ബാലൻ പിന്നീടൊരു ദിവ്യ ബാലനായിട്ട് മാറുകയും ദൈവ പുത്രനായിട്ട് മാറുകയും ചെയ്ത ആ അത്ഭുത സംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കലും കൂടിയാണ് ക്രിസ്മസ് എല്ലാ മതവിശ്വാസികളും ഇപ്പോൾ ക്രിസ്മസ് ലൈറ്റുകൾ കത്തിക്കുകയും പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്